ഇപ്പോൾ സമൂഹത്തിൽ വരും തലമുറയിലുള്ള പിള്ളേർ എല്ലാവരും കായിക വിനോദങ്ങൾ ഒരു കളിക്കാനാഗ്രഹിക്കുന്ന ഒരാൾക്കാരാണ് അവർക്ക് വളരെ നല്ല അഭിപ്രായമാണത് കളിക്കുന്നതിനും കാരണം ഒരു സമയം അവരുടെ സ്പെൻഡ് ചെയ്യും അതായത് ഇപ്പം അവർക്ക് വിഷമം വന്നിരിക്കുന്ന സമയം അവരാ വിനോദങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരുടെ വിഷമം അവരുടെ സ്ട്രെസും അവരുടെ കുറച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സായി നല്ലൊരു ഇതിലോട്ട് വരും അവർ അവരുടെ ഒരു അവർ സ്കൂളിൽ നിന്നിപ്പം സ്കൂളിൽ പോയിട്ട് വരുന്നവരാണെ ഒരു നാലു മണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ടൊരു അഞ്ച് മണി മുതൽ ആറ് മണി വരെ കളിക്കുമ്പോഴത്തേക്ക് അവരുടെ ആ സ്കൂളിൽ നിന്ന് വന്ന സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം ഒന്ന് റിലക്സായിട്ട് കുട്ടികളൊരു ഒരു വളരെ ഒരു ഉന്മേഷവാന്മാരായിട്ട് എപ്പോഴും നിൽക്കും ആ അത് അത് ഈ വിനോദത്തിന് ഒരു ഈ കായിക വിനോദത്തിൻ്റെ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഘടകമാണത് അത് ഈ വരും തല മുറയിലുള്ള പിള്ളേരും ഇപ്പോഴത്തെ തലമുറക്കാരും എല്ലാം ഫോളോ ചെയ്യുന്നതാണ് പിന്നെ ഈ കഴിഞ്ഞ് പോയ തലമുറക്കാരും മാത്രമുള്ളതായിരുന്നു ഇതിന് വലിയ പ്രോത്സാഹനം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ആ ഒരു ഈ ഈ അവർ മാത്രല്ല അവർ കായിക വിനോദങ്ങളിലൊന്നും ഏർപ്പെടാതെ അവരവരുടെ കാര്യം നോക്കിയാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത് ഈ ഇപ്പോഴത്തെ ജനറേഷനും വരും വരുന്ന ജനറേഷനും എല്ലാം ഈ കായികവിനോദങ്ങളെ എല്ലാം എഞ്ചോയ് ചെയ്ത് അവർ അവരുടെ സ്ട്രെസ്സും അവരുടെ ആ ഇതെല്ലാം ഒന്ന് റിലാക്സാക്കി കൊണ്ട് അവരുടെ ജീവിതം നല്ല രീതിയിൽ അവർ മുന്നോട്ട് കൊണ്ട് വരുന്നുണ്ട്